ഹലോ ഇത് കസ്റ്റമർ കെയറല്ലേ ഞാൻ എൻ്റെ പേര് ജോസൂട്ടി എന്നാണ് ഞാൻ ഇപ്പം കൊച്ചിൻ എയർപോർട്ടിൽ നിൽക്കുകയാണ് ഡൽഹിക്ക് പോവാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞാൻ എൻ്റെ യൂട്ടിലിറ്റി ബിൽ എടുക്കാൻ മറന്നുപോയി അപ്പോഴെനിക്ക് എൻ്റെ ഡിജിലോക്കറിൽ നിന്നും എങ്ങനെ യൂട്ടിലിറ്റി ബില്ലെടുക്കാമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ സെറ്റിങ്ങ്സ് കയറി എന്താണ് ആ ചെയ്യേണ്ടത് അതിൻ്റെ എനിക്കൊന്നു ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമോ അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളു എനിക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങളതിൻ്റെ ഒരു ഗൈഡൻസ് തരികയാണെങ്കിൽ വളരെ ഹെൽപ്പ് ഫുള്ളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വൺ ബൈ വണ്ണായിട്ട് അതിൻ്റെ ഓഡർ അനുസരിച്ചൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരികയായിരുന്നെങ്കിൽ വളരെ ഹെൽപ്പ് ഫുള്ളായിരുന്നു ഓക്കെ താങ്ക് യു